ആ ഹലോ ഇത് വെജിറ്റബിൾസ് മാർക്കറ്റാണ് അടുത്തുള്ള അപ്പോള് മലപ്പുറത്ത് ആ ഓക്കെ ആ ആ എങ്ങനത്തെ ഫങ്ഷൻസാണ് ഉദ്ദേശിച്ചത് ഓ മാര്യേജ് ഫങ്ഷനാണ് ആ ഓക്കെ ഞങ്ങളുടെയടുത്ത് ഇപ്പോള് കിലോവിന് ഫ്രൂട്ട്സ് തക്കാളി ഫ്രൂട്ടസ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ വെജിറ്റബിൾസ് വരുന്നത് തക്കാളി വരുന്നത് എന്താണ് കിലോവിന് നൂറ് രൂപ വെച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ വെളുത്തുള്ളിക്ക് അതുതന്നെ കിലോവിന് തന്നെ കിലോവിന് നൂറ് രൂപ ആ ബാക്കി ബാക്കിയുള്ളത് വലിയയുള്ളി പിന്നെ അതുപോലെ തന്നെ ആ ഞാൻ ആ ഞങ്ങളുടെ ഈ ഷോപ്പിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ കാരണം ഞങ്ങളുടെ പല ബ്രാഞ്ചുകളും അവിടെ അടുത്തുണ്ട് നിങ്ങൾക്ക് വേണമെങ്കില് നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്നാണ് പറഞ്ഞത് ആ ഓക്കെ ഓക്കെ ഞങ്ങള് വേണമെങ്കില് നിങ്ങള് നിങ്ങള്ക്ക് എങ്ങനെയാണ് ഹോം ഡെലിവറിയായി കൊണ്ടുവരണോ അതോ നിങ്ങള് ഷോപ്പില് വന്ന് വാങ്ങുകയാണോ ആ ഓക്കെ ഓക്കെ ആ എക്സ്ട്രാ പേയ്മെന്റെന്ന് പറഞ്ഞാല് അമ്പത് രൂപ വെച്ച് വരും അത്രയെയുണ്ടാവുകയുള്ളൂ പിന്നെ ഹോം ഡെലിവറി നിങ്ങള്ക്ക് ഞങ്ങളുടെ ബ്രാഞ്ചുകള് അവിടെ അടുത്ത് നിങ്ങളുടെ തൊട്ടടുത്തുതന്നെയുണ്ടാകും ഞങ്ങളുടെ ഷോപ്പുകള് അപ്പോള് അവിടെയുമായി ബന്ധപ്പെടുക ഞങ്ങളവിടേക്ക് വിളിച്ചു പറയാം പേയ്മെൻസ് നിങ്ങൾക്ക് അവിടെ ഏൽപ്പിക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓൺലൈനായി പേ ചെയ്യാം

ആ ഫംഗ്ഷൻസിൻ്റെ രണ്ട് ദിവസം ആ ഓക്കെ ഫങ്ഷൻസിൻ്റെ രണ്ട് ദിവസം മുന്നേ ഞങ്ങളെത്തിക്കാം കേട്ടോ സാധനങ്ങള് ആ ഓർഗാനിക് ഓർഗാനിക് ഉണ്ടാകും ഓക്കെ ഇത് ഞങ്ങള് ഇറക്കുന്നത് ഓർഗാനിക് സാധനങ്ങളാണ് ഞങ്ങൾ തമിഴ്നാട്ടില് നിന്ന് അങ്ങനെ പല സ്ഥലത്തുനിന്നും ഞങ്ങളുടെ സെക്യൂർ ആയിട്ടുള്ള വിശ്വസ്തരായിട്ടുള്ള ആളുകളില് നിന്നാണ് ഞങ്ങള് ഈ സാധനങ്ങള് ഇറക്കുന്നത് ഓക്കെ ഓക്കെ ആ ഓക്കെ താങ്ക്സ്